പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ രീതി എന്നു പറയുമ്പോൾ ഒരുപാട് മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് പാലക്കാട് ഒരുപാട് പഠന അവസരങ്ങൾ ഉണ്ട് പാലക്കാട് ഒരുപാട് കോളേജുകൾ ഉണ്ട് നമുക്കറിയാം പാലക്കാടിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോളേജാണ് വിക്ടോറിയ കോളേജ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് അപ്പോൾ ഒരുപാടു പഴക്കമുള്ള ഒരു കോളേജാണ് ഒരുപാടു പേർ ആ ഒരു കോളേജിൽ നിന്ന് പഠിച്ച് മുന്നേറിയവരുണ്ട് എം ടി വാസുദേവൻ ഒ വി വിജയൻ അതുപോലെതന്നെ നമ്മുടെ ഒളിമ്പിക്സിലും മറ്റെ ഏഷ്യൻ ഗെയിംസിലും പങ്കെടുക്കുന്ന ശ്രീശങ്കർ അങ്ങനെ ഒരുപാട് പ്രതിഭകൾ പഠിച്ചിറങ്ങിയ കോളേജാണ് അതുപോലെത്തന്നെ ഇനിയുമുണ്ട് ചിറ്റൂർ കോളേജ് അതുപോലെ എൻ എസ് എസ് കോളേജ് അങ്ങനെ ഒരുപാട് കോളേജുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കോളേജുകളും അതുപോലെത്തന്നെ മറ്റു സ്കൂൾ സ്കൂളുകളും ഒരുപാട് സ്കൂൾ ഉണ്ട് നവോദയ സ്കൂൾ വാസരീ വിദ്യാലയ അങ്ങനെ ഒരുപാട് സ്കൂളുകൾ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്കൂളുകളും കാര്യങ്ങളെല്ലാം പാലക്കാടിന്റെ വികസനത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് പഠന അവസരങ്ങൾ ഒരുപാടുള്ള ജില്ലയാണ് പാലക്കാട് കോച്ചിംഗ് ക്ലാസുകൾ ഒക്കെ നോക്കുകയാണെന്നു വച്ചാൽ നൂക്ലിയസ് അക്കാദമി ഉണ്ട് അതുപോലെതന്നെ സൈലം അക്കാദമി അങ്ങനെ ഒരുപാട് കോച്ചിംഗ് ക്ലാസുകളും മറ്റുമുണ്ട് സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയെന്നു പറയുമ്പോൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് സർക്കാർ സ്കൂളുകളിൽ നിന്ന് ലഭ്യമാകുന്നത് മിക്ക ആളുകളും സർക്കാർ സ്കൂളുകളെയാണ് ആശ്രയിക്കുന്നത് അത്യാവശ്യം സമ്പന്നമായുള്ളവരൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളെ ആശ്രയിക്കുന്നത് സർക്കാർ സ്കൂളുകളിൽ നല്ല കഴിവുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സ് സർക്കാർ സ്കൂളുകളിലുണ്ട് അതുപോലെത്തന്നെ പിന്നെ ഒരുപാട് പാലക്കാട് നോക്കുകയാണെങ്കിൽ നമ്മളെ അത്യാവശ്യം നമ്മളെ കാസ്റ്റിൻ്റെ ഒരു ജാതിയുടെ ആ ഒരു കാസ്റ്റിൻ്റെ ബേസിൽ നമുക്ക് കോളേജുകൾ ആയിക്കോട്ടെ നമുക്ക് അവിടെ പെട്ടെന്ന് സീറ്റ് കിട്ടുന്നതും പാലക്കാട് ജില്ലയിൽ കൂടുതലായിട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ പാലക്കാട് ഒരുപാട് വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുപാട് ലഭ്യമായിട്ടുള്ള ജില്ലയാണ് പാലക്കാട്